ഇന്ന് മത്സ്യ ബന്ധനത്തിന് വളരെ അധികം പുതിയ പുതിയ രീതികൾ ആണ് ഉപയോഗിച്ച് വരുന്നത് ഉദാഹരണം പൊടി വല ഉപയോഗിച്ച് ഒരു കുളം അല്ലെങ്കിൽ ഒരു പുഴയിലെ മുഴുവൻ മീൻ അരിച്ചുമാറ്റി പിടിക്കുന്നതും അതുപോലെ തന്നെ വൈദ്യുതി കമ്പി ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈദ്യുതി ബാറ്ററി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതും തോട്ട പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനൊക്കെ ഇതിനുള്ള ഉദാഹരണമാണ് ഈ തോട്ട ഉപയോഗിച്ച് നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ ഇതൊരു രാസവസ്തുവാണ് ഈ രാസവസ്തു ജലത്തിൽ കലരുകയും ജലം മലിനമാവുകയും ജലത്തിലുള്ള ജീവജാലങ്ങൾ ഒട്ടനേകം അല്ലെങ്കിൽ ഒട്ടുമിക്ക ജീവജാലങ്ങളും മരണപ്പെട്ടു പോവുകയും ജലം മലിനമാകാൻ കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ബാറ്ററി ഉപയോഗിച്ചുള്ള മീൻ പിടിത്തത്തിലൂടെ ആ വെള്ളത്തിലെ ചെറുമീനുകളും വലിയ മീനുകളും ഒന്നടങ്കം മരണപ്പെട്ടു പോയി ജലത്തിൻ്റെയും അല്ലെങ്കിൽ ജലവിഭവത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ജലമലിനീകരണത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്